എനിക്ക് ഏറ്റവും വെല്ലുവിളി നിറഞ്ഞ ഒരു തുണി ഒരു വസ്ത്രം തയ്ച്ച ഒരനുഭവമെന്നു പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻ്റിയുടെ അതായത് മമ്മിയുടെ ചേച്ചിയുടെ

മകളുടെ മകളുടെ കല്യാണത്തിനായിരുന്നു ആൾക്ക് ഡ്രസ്സ് അതായത് മേക്കപ്പും ഡ്രസ്സും എല്ലാം ഞാൻ ഒറ്റ ഒരാൾ ഞാൻ തന്നെയായിരുന്നു ചെയ്തിരുന്നത് നമ്മൾ ഒരാളെ തന്നെ ഏൽപ്പിച്ചു പുറത്തു കൊടുക്കുകയെന്നു പറഞ്ഞിട്ട് ആളെ ആളുടെ അടുത്ത് എന്ത് പ്രശ്നമൊക്കെ ഉണ്ടായി നമ്മളെ കൊണ്ട് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അത് ഏൽപ്പിക്കാമെന്നു പറഞ്ഞ് രണ്ടു ദിവസം മുൻപേ ഏൽപ്പിച്ചു എന്നിട്ട് ഒരുപാട് ഡിസൈനും പറഞ്ഞു അതായത് കൈ അങ്ങനെ വേണം കഴുത്തിൽ ഇങ്ങനെ വേണം അതു പോലെ സ്റ്റോൺസ് എല്ലാം പിടിപ്പിക്കണം ബാക്ക് ഭാഗം നെറ്റ് വേണം അതിലാളുടെ ഫോട്ടോ വേണം അങ്ങനെ കുറേ കുറേ കണ്ടീഷൻസ് ആൾ വെച്ചു അപ്പം ഇങ്ങനെ ഒരു റിലേഷനുള്ള ഒരാളായതു കൊണ്ട് നമുക്ക് തള്ളിക്കളയാനും പറ്റത്തില്ല അതു പോലെ അക്സെപ്റ്റ് ചെയ്യാനും പറ്റത്തില്ല എന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഞാൻ പിന്നെ ഏറ്റെടുക്കാതിരിക്കാൻ പറ്റാത്തതു കൊണ്ട് ഏറ്റെടുത്തു പിന്നെ തുണി ആൾ ആ ബ്ലൗസിനുള്ള തുണി മാത്രം കൊണ്ട് കല്യാണ ബ്ലൗസിനുള്ള തുണി മാത്രം കൊണ്ടു തന്നു പക്ഷേ അതിനുള്ള ലൈനിങ്ങും കാര്യങ്ങളൊന്നുമില്ല ആ സമയത്ത് പിന്നെ ലൈനിങ് എടുക്കാൻ പോയി അതിന് അതേ പിടിക്കാൻ ചേരുന്ന കല്ല് മീൻസ് സ്റ്റോൺസ് സംഭവങ്ങളൊക്കെ പിന്നെ അതിനു ചേരുന്ന നൂല് എല്ലാ ഏ റ്റു ഇസഡ്ഡ് സാധനങ്ങളും നമ്മൾ ഞാൻ തന്നെ എടുത്തു ചെയ്യേണ്ടൊരു കാര്യമുണ്ടായിരുന്നു പിന്നെ പുറത്ത് ബാക്ക് ഭാഗം ഫോട്ടോ എടുത്ത് പ്രിൻ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ചെയ്യാനൊക്കെ പോ പോകേണ്ട അത് എടുക്കാൻ പോ ഒറ്റ ദിവസം കൊണ്ട് എല്ലാം എടുത്ത് അടുത്ത ഒറ്റ ദിവസം കൊണ്ടു തന്നെ ഇതെല്ലാം തയ്ച്ചു പെറുക്കി കൊടുക്കേണ്ട ഒരു അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു പിന്നെ നൈറ്റൊന്നും ഉറങ്ങാതെ ബ്ലൗസ് തയ്ച്ചെങ്കിലും ബാക്കി മീം സ്റ്റോണിൻ്റെ വർക്കൊന്നും എനിക്ക് ചെയ്യാൻ സാധിച്ചില്ല പകൽ ഇന്ന് തയ്ച്ചെല്ലാം റെഡിയാക്കി പെറുക്കി എടുത്തു കല്യാണ ബ്ലൗസ് ആയതു കൊണ്ട് ചെറിയൊരു ഇതു വന്നാൽ പോലും നമ്മളൊരു മോശമായിട്ട് പറയും അപ്പം അത്രയും എഫർട്ട് എടുത്ത് ഞാൻ നൈറ്റ് ഒരേ ഒരുപോള കണ്ണു പോലും അടയ്ക്കാതിരുന്നിട്ടാണ് ഡ്രസ്സിൻ്റെ വർക്കുകളെല്ലാം ഫുള്ള് കംപ്ലീറ്റാക്കി ചെയ്തു കൊടുത്തത് അതെനിക്ക് ഭയങ്കര ഒരു ടാസ്ക് ഏറിയ ഒരു ഒരു ഒരനുഭവമായിരുന്നു പക്ഷെ അത് ചെയ്ത് കൊടുത്തെങ്കിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിറ്റേ ദിവസം ആളെ ഒരുക്കുകയും ചെയ്യണമല്ലോ അതെല്ലാം ഈ ഫുള്ള് മേക്കപ്പും കാര്യങ്ങളും എല്ലാം നമ്മുടെ കയ്യിൽ അപ്പം എല് രണ്ടും പക്ഷേ ദൈവാനുഗ്രഹം കൊണ്ട് ഇത് രണ്ടും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട് മേക്കപ്പാണെങ്കിലും അതുപോലെ ഡ്രസ്സിങ്ങിൻ്റെ ആ ഡ്രസ്സ് തയ്ച്ചു കൊടുത്തതിനു ശേഷം എനിക്ക് ഒരുപാട് അതായത് കല്യാണ വർക്ക് അതിനു ശേഷം എനിക്ക് ഒരുപാട് കിട്ടി തുടങ്ങിയത് അതിനു ശേഷമാണ് അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരുപാട് ഡ്രസ്സുകൾ തയ്ച്ചു കൊടുത്തിട്ടുണ്ട് രണ്ടു ദിവസം മൂന്നു ദിവസം കൊണ്ടൊക്കെ പക്ഷേ ചെയ്തു കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇത്രയും ഡിമാൻഡ് ഏറിയ അല്ലെങ്കിൽ ഇത്രയും ഒരു വർക്ക് ആദ്യമായിട്ട് ഏറ്റെടുത്തൊരു വർക്ക് അത്രയും ഒരു ചാലഞ്ചിങ്ങായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് എൻ്റെ ബന്ധത്തിലുള്ള ഒരാളായിരുന്നെന്നു മാത്രമേയുള്ളൂ പക്ഷെ അതു കൊണ്ട് എനിക്ക് ഏറെ ഉപകാരം ഉണ്ടായിട്ടുണ്ട് കേട്ടോ അതു കൊണ്ടാണ് ഞാനിന്ന് എനിക്കിത്രയും വർക്കുകളല്ല എനിക്ക് കിട്ടാനും കാരണം അതു തന്നെയാണ്